ഹലോ ആ ഇത് ഓഷ്യൻ റെസ്റ്റോറൻറ്റ് അല്ലേ ആ ഓക്കെ ഓക്കെ ഞാനെ കുറച്ചു നേരം മുൻപ് ഒരു ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു നാലു ബിരിയാണിയും ഒരു ഫുൾ മന്തിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അൽഫം മന്തി ആ അതന്നെ അതന്നെ ആ ഓക്കെ ഞാനിപ്പോൾ ഓർഡർ ചെയ്തിട്ട് നിങ്ങൾ പതിനഞ്ചു മിനിറ്റ് കൊണ്ട് സ്ഥലത്തെത്തിക്കാം എന്നായിരുന്നു പറഞ്ഞത് ആ ഓക്കെ ഓക്കെ നിങ്ങൾ ഇതുവരെ സാധനം എത്തീട്ടില്ല ആ ഓക്കെ ഓക്കെ ആ ഇല്ല ഞാനത് ലേറ്റ് ആവുന്നത് എന്താന്നറിയാൻ വേണ്ടീട്ടായിരുന്നു ഇത് കഴിച്ചിട്ട് ഞങ്ങൾക്ക് പുറത്ത് പോകാനുള്ള ഒരു പ്ലാൻ ഉണ്ട് അപ്പോൾ ഞങ്ങൾക്ക് പുറത്തേക്ക് പോകണമായിരുന്നു അപ്പോൾ ഇതുവരെ എത്താത്തതുകൊണ്ടാണ് ഞാൻ വിളിച്ചു നോക്കുന്നത് ആ ഓക്കെ ഓക്കെ ആ അല്ല ഞാൻ എന്താ കരണമെന്നറിയാൻ വേണ്ടീട്ടായിരുന്നു ആ എന്തായിരുന്നു കാരണം അതേല്ലേ ഡെലിവറി ബോയ്ക്ക് സുഖമില്ലാണ്ട് ഹോസ്പിറ്റലിൽ ആ ഓക്കെ ഓക്കെ നിങ്ങളപ്പോൾ വേറെ ആരുടെയെങ്കിലും കൈയിലൊന്നു കൊടുത്തുവിടാൻ പറ്റുമോ എനിക്ക് കുറച്ച് അർജൻറ്റ് ആയിരുന്നു ആ ഓക്കെ ഓക്കെ നിങ്ങളെന്തായാലും പെട്ടന്നയച്ചാൽ മതി ആയിക്കോട്ടെ കൊടുത്തു വിട്ടാൽ മതി